എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ചെറുപ്പകാലജീവിതം കുട്ടനാടൻ മേഖലയിലായിരുന്നു കുട്ടനാട്ടിലായിരുന്നു എൻ്റെ അമ്മയുടെ തറവാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജനിച്ചതും വളർന്നതും എല്ലാം അവിടെയാണ് ആലപ്പുഴ നഗരത്തിലായിരുന്നു എൻ്റെ ഫാദറിൻ്റെ കുടുംബം എങ്കിൽപ്പോലും എൻ്റെ അമ്മ ഒറ്റയ്ക്കുണ്ടായിരുന്നതുകൊണ്ട് അമ്മയുടെ കുടുംബത്തിലേക്ക് അച്ചായൻ എത്തുകയും ഞങ്ങളങ്ങനെ കുട്ടനാട്ടുകാരായി കുട്ടനാട്ടിൽ തളത്തിൽ എന്ന് പറയുന്ന വീട്ടിൽ ജനിച്ചുവളർന്ന് അവിടെ ഞങ്ങൾ പത്താം ക്ലാസ് വിദ്യാഭ്യാസം വരെയും ഞങ്ങൾ ഏകദേശം ഞങ്ങൾ അവിടെത്തന്നെയായിരുന്നു താമസമെല്ലാം ഈ സന്ദർഭത്തില് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ ഭവനങ്ങളിലെ കുടുംബ പ്രാർത്ഥനകളായിരുന്നു വളരെയേറെ താല്പര്യപൂർവ്വം കൃത്യസമയങ്ങളിൽ കുടുംബ പ്രാർത്ഥന നടത്തിയിരുന്ന വീടുകളായിരുന്നു ആ ആ കാലങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന മിക്കവ എല്ലാ ഭവനങ്ങളിൽ തന്നെയും കാരണം അതിനുള്ള നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളുടെ ദേവാലയങ്ങളിൽ അന്ന് ഞങ്ങൾ പോകുന്നത് ദേവാലയത്തിലായിരുന്നു ഇടവക ദേവാലയത്തിലായാലും ഈ ദേവാലയത്തിലായാലും എല്ലാം അവിടുത്തെ നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ച് ഞങ്ങൾ അവരവരുടെ ഭവനങ്ങളിൽ കൃത്യമായും സന്ധ്യാസമയത്തുള്ള പ്രാർത്ഥനകൾ വളരെ സജീവമായിരുന്നു ആ കാലഘട്ടങ്ങളിലൊക്കെ അത് എൻ്റെ ഭവനത്തിൽ സമയത്തുള്ള ഞങ്ങൾ കൃത്യതയോടെ ഞങ്ങൾ ഏഴ് മണി ഏഴ് മണിയോട് കൂടി വൈകുന്നേരം പ്രാർത്ഥന ആരംഭിക്കും എൻ്റെ അമ്മയും എൻ്റെ അപ്പനും അവർ അവരോടൊപ്പം പാടുന്ന ഒരു രീതിയായിരുന്നു പാരമ്പര്യമായിട്ട് എൻറ്റമ്മയെ സംബന്ധിച്ചിടത്തോളം കുട്ടനാട്ടിൽ ചെമ്പക്കുളം എന്ന പ്രദേശത്തായിരുന്നു എൻ്റെ അമ്മയുടെ അമ്മ അമ്മവീട് അമ്മയുടെ സഹോദരനെന്ന് പറയുന്നത് വളരെ പ്രഗല്ഭനായിരുന്ന സർവ്വശ്രീ ആന്റണി ഭാഗവതരുടെ ആന്റണി ഭാഗവതരായിരുന്നു ചമ്പക്കുളത്ത് പുതിയാമഠം പുതിയാമഠം ചിറ്റിക്കാടെന്ന ഭവനത്തിൽ ജനിച്ചു വളർന്ന ഈ കലാരംഗത്ത് ഗാനരംഗത്ത് വളരെയധികം പ്രഗൽഭനായ ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകളാണ് എൻ്റെ അമ്മ ആ ഒരു തലത്തിൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് അമ്മയ്ക്ക് നന്നായിട്ട് പാടാനുള്ള ഒരു കഴിവ് ദൈവം കൊടുത്തിരുന്നു അത് അങ്ങനെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളിലുമൊക്കെ ആ ഗാനത്തിന്റേതായ പാട്ടിൻ്റെ പാട്ടിന്റേതായ ഒരു പാരമ്പര്യം ചെറിയ രീതിയിൽ നിലനിന്നിരുന്നു നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം അച്ചായനോ അമ്മച്ചി അമ്മയും ചേർന്ന് ഇങ്ങനെ പാട്ടുകൾ പാടി ഞങ്ങൾ തീർച്ചയായും ഞങ്ങളോടെല്ലാം പാടാനുള്ള നിർദ്ദേശം തന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പാടുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത് എല്ലാ ദിവസത്തെയും എല്ലാ പ്രാർത്ഥനക്ക് ശേഷം ഞങ്ങൾ ഞാനും എൻ്റെ സഹോദരനും ഞങ്ങൾ നാലുപേര് നാല് ആണ്മക്കളായിരുന്നു ഞങ്ങൾ നാലുപേരും അമ്മയും അപ്പനും കൂടി ചേർന്ന് ഇതുപോലെ സ്തുതിപ്പുകൾ പാടുമായിരുന്നു അപ്പോൾ തന്നെ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരേ ഞങ്ങൾ നാലുപേരായിരുന്നു പറഞ്ഞല്ലോ ഞങ്ങൾ നാല് പേർക്കും പാടാനുള്ള ഇതുപോലുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല നാലുപേരിൽ രണ്ടുപേരായിരുന്നു നന്നായിട്ട് പാടുന്നത് പിന്നെ രണ്ടു പേര് ഞാനും എൻ്റെ വേറൊരു സഹോദരനും ഞങ്ങളത്ര നല്ല പാട്ട് പാടാൻ പാടാനുള്ള താല്പര്യം ഇല്ലായിരുന്നു അതിനുള്ള കഴിവും അങ്ങനെ ഒന്നും കണ്ടില്ല പക്ഷെ അതുകൊണ്ട് ഞങ്ങൾ അവരുടെ പുറകിൽ അവർ മുമ്പിൽ നിൽക്കുകയും ഞങ്ങൾ പുറകിൽ നിൽക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ പാടാൻ വേണ്ടി നമുക്ക് ആദ്യമായി പാടുന്നതിനുള്ള സാഹചര്യവും താല്പര്യവും നമുക്ക് എനിക്ക് ഞങ്ങൾക്ക് പകർന്ന് തന്നത് അല്ലേൽ എനിക്ക് പകർന്ന് തന്നത് എൻ്റെ മാതാപിതാക്കളാണ് അവർ കാണിച്ചുതന്ന ബന്ധാവിൽ കൂടിയാണ് ഞങ്ങളും അടുത്ത തലമുറയിലേക്ക് വന്ന് ഞങ്ങളും പഠിച്ച് വലുതായി പിന്നെ ഉദ്യോഗം ജോലിയൊക്കെയായി ഞങ്ങൾ വിവാഹിതരായി ഞങ്ങൾക്ക് മക്കളായപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അതുപോലെതന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഭവനങ്ങളിൽ കാണിക്കുന്നത് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഈ ഒരു വിജ്ഞാനം അതായത് ഈ ഒരു പാരമ്പര്യം അല്ലേൽ ഈ ഒരു അറിവ് അങ്ങനെ ഞങ്ങൾ എന്നും ഇങ്ങനെ ഭവനങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം പാടുന്നത് കൊണ്ട് ഞങ്ങളുടെ ശബ്ദത്തിന് ഒന്നുകൂടെ മാറ്റം വന്നു അന്ന് ഞങ്ങൾ പിന്നിൽ പിന്നിലായിരുന്നുവെങ്കിൽ പോലും പിന്നെ കുറച്ചു കൂടെയൊക്കെ നമുക്ക് പാട്ടു പാടുന്നതിന് കുറച്ചു കൂടെ ഭേദമായ രീതിയിൽ ശബ്ദവും താളവും ഒക്കെ അങ്ങനെ കിട്ടി അങ്ങനെ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ഇപ്പം കൂട്ടത്തിൽ പാടാം അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു ബന്ധാവ് കാണിച്ചുകൊടുത്തുകൊണ്ട് അവരുടെ മുമ്പിൽ നിന്നുകൊണ്ട് പാടാനുള്ളൊരു കഴിവ് ദൈവം തന്നു അങ്ങനെ ഞങ്ങൾ ഭവനങ്ങളിൽ അത് പാടുന്നുണ്ട് അപ്പം ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള എനിക്ക് കിട്ടിയ ഈ അനുഭവം എനിക്ക് കിട്ടിയ അനുഭവവും ഞാൻ എൻ്റെ തലമുറയോട് എൻ്റെ മക്കളോട് ഞാനത് പങ്കുവച്ചു ഞാൻ വളരെ ആഗ്രഹിച്ചു എനിക്ക് കിട്ടാതിരുന്ന ആ ഒരു ഭാഗ്യം അതായത് പാട്ടിന് അത്രയും മെച്ചമല്ലായിരുന്നുന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകാരണം എനിക്ക് എൻ്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മൂന്ന് പെൺമക്കളാണ് മൂന്ന് പെൺമക്കളിൽ ആദ്യത്തെ രണ്ടുപേരെയും ഞാൻ ഇതേപോലെ പാട്ട് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ ഞാൻ വിടുകയും അവരെ സംബന്ധിച്ചിടത്തോളം അവരും കുറച്ച് പഠിക്കാൻ ശ്രെമിക്കുക ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വിധം നല്ല വോയിസാണ് അവർ എല്ലാവരും ഒക്കെ പാടും മൂന്നുപേരും പാടും രണ്ട് പേര് ക്ലാസ്സിക്കലായിട്ട് ഞാൻ പറഞ്ഞല്ലോ രണ്ടുപേരാണ് ക്ലാസിക്കല് പഠിക്കാൻ പോയത് മൂന്നാമത് വിടാൻ പറ്റിയില്ല പക്ഷെ രണ്ടുപേരും ക്ലാസ്സിക്കല് കുറച്ച് പഠിക്കുകയും കീർത്തനങ്ങളൊക്കെ ഒരേ ആയിരുന്നു കീർത്തനങ്ങളൊക്കെ ഒരേ പഠിച്ചു അതിനുശേഷം അവർ വീട്ടിൽ വന്നിരുന്ന് കീർത്തനങ്ങളൊക്കെ പാടും അതിലെനിക്കും താല്പര്യമുണ്ടായിരുന്നു ഞാനും ഇത് എൻ്റെ ജോലി സംബന്ധമായി ഞാൻ പോയി കഴിഞ്ഞപ്പോൾ എനിക്കും ഈ പറഞ്ഞ എൻ്റെ വല്യപ്പൂപ്പൻ ആയ ആ എൻ്റെ ഭാഗവതരുടെ കാര്യം പറഞ്ഞല്ലോ എൻ്റെ ഭാഗവതരുടെ അറിയാവുന്ന ഒരു ശിഷ്യൻ ആയിരുന്നു ഞാൻ ആ ശിഷ്യൻ്റെ കൂടെ അന്ന് ഞാനും വയലിൻ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് നാൾ വയലിൻ ഒക്കെ പഠിക്കുകയും അങ്ങനെ എനിക്ക് ഇതിനോട് ഈ കലയോട് അല്ലേൽ ഈ ഗാനത്തോട് താല്പര്യം തോന്നി ഞാനും അതിൻ്റെ കുറച്ച് ക്ലാസ്സിക്കൽ മ്യൂസിക് ക്ലാസിക്കൽ സോങ്ങ് മ്യൂസിക്കിൻ്റെ കുറച്ച് ആദ്യാക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അങ്ങനെ എൻ്റെ മക്കളോടൊപ്പം ഞാനും കീർത്തനങ്ങൾ പാടുമ്പോൾ അതാസ്വദിക്കുകയും താളം പിടിക്കുകയും ഒക്കെ ചെയ്യാനായിട്ട് വല്യ താല്പര്യമായിരുന്നു അങ്ങനെ ഒന്നും മക്കളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞങ്ങളുടെ രണ്ടാം തലമുറ ഇപ്പം അവർ അവർ ഇപ്പം നന്നായിട്ട് പാടും ഇവിടെ വീട്ടിലാണേലും അല്ലാതെ ആണേലും ഭവനത്തിലും പരിസരങ്ങളിലും ഒക്കെ അവർക്ക് പാട്ട് പാടുന്നതിനു അതുപോലെ ഒരു കഴിവും ധൈര്യവും ഒക്കെ ദൈവം തന്നിട്ടുണ്ട് അത് ഞങ്ങൾ വളരെ നല്ല രീതിയിലൊക്കെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് നിർത്തുന്നു